ഒരു ഒത്തിരി ലോങ്ങ് ആയിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ ഞാൻ കൂടെ കരുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിപ്പോൾ നമ്മൾ ലോങ്ങിപ്പോൾ നമുക്ക് നമ്മള് ലോങ്ങായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുകയാണെന്ന് വച്ചോ നമുക്ക് ഒത്തിരി സാധനം നമ്മള് വെറുതെ ക്യാരി ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ക്യാരി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സെന്ന് വച്ചാൽ ഒത്തിരിയൊന്നും എടുക്കില്ല നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ഇമ്പോർട്ടന്റ് ഇപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയില് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങള് സ്ത്രീക്ക് വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങള് അവരുടെ ഡ്രസ്സ് അതൊരു നാല് ജോഡി അല്ലങ്കിൽ മൂന്ന് ജോഡി അതില് കൂടുതല് ഡ്രസ്സ് വേണ്ട നമുക്ക് വാഷ് ചെയ്തിട്ടു ഉപയോഗിക്കാം അങ്ങനെയുള്ള രീതീയിൽ കുറേ കൊണ്ട് പോയിട്ട് കാര്യമില്ല ജീൻസും ടി ഷർട്ടും കരുതുന്നതുതന്നെയായിരിക്കും നല്ലത് പിന്നെ പേസ്റ്റ് ബ്രഷ് ഒരു സോപ്പ് ഒരു അലക്കുന്ന സോപ്പ് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു വണ്ടി ആണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടീട്ടുള്ള കുറച്ച് റൈസ് പൊട്ടറ്റോ കുറച്ച് ഓയില് മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ കുറച്ച് ചെറുങ്ങനെയുള്ള അല്ലെങ്കിൽ കുക്ക്ഡ് ന്യൂഡിൽസ് ഉണ്ടാകുമല്ലോ നമുക്ക് ചൂട് വെള്ളം ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് പാക്കറ്റുകൾ

കുറച്ച് മെഡിസിൻസ് ഇപ്പോൾ നമുക്ക് വയറ് വേദന തലവേദന പനീൻ്റെ കുറച്ച് മെഡിസിൻസ് കരുതും പിന്നെ ചാർജർ ഫോണിൻ്റെ ചാർജർ ഹെഡ് സെറ്റ് പവർ ബാങ്ക് പിന്നെ നമ്മുടെ ഐ ഡി പ്രൂഫ് ഒറിജിനൽ അത്യാവശ്യമാണെങ്കിൽ ഒറിജിനൽ അല്ലെങ്കില് അതിൻ്റെ പിന്നെ കോപ്പികൾ കരുതി വെക്കണം ഒരു സ്ഥലത്ത് പോയാൽ നമുക്കത് അവർ ചോദിക്കും നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒറിജിനൽ വേണം മാസ്റ്റാണ് പിന്നെ അത് നമ്മള് സൂക്ഷിക്കേണ്ട സാധനം ആണ് നമ്മുടെ കയ്യിൽ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലുള്ളവരും എങ്ങനെയെന്നറിയില്ല ബൈക്കിങ്ങ് യാത്രയിൽ ചിലപ്പോൾ കൊള്ളക്കാരുണ്ടാകും അപ്പോൾ ഗോൾഡ് പോലത്തെ സാധനങ്ങൾ ഫുൾ ഉപയോഗിക്കുന്നത് മാറ്റും കാരണം അത് നമുക്ക് സുരക്ഷിതമല്ല ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് കുറച്ച് എമർജൻസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കരുതുന്നതാണ് കരുതുന്നതായിരിക്കും നല്ലത് ഞാനങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് കരുതുക